ഇത് ശരിയാണെന്ന് ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ പറഞ്ഞ് പറയാൻ പറ്റത്തില്ല എന്താണെച്ചാൽ അവതാരകരോടും മറ്റ് എതിർ കക്ഷികളോടും അവരെ ഇരുത്തക്കത്ത രീതിയിൽ ആണ് അവർ സംസാരിക്കുന്നത് ആ ഒരു രീതി

വളരെ മോശമായി തന്നെയാണ് കാണാറുള്ളത് മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവയെ എതിർക്കുക അത് അതാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം രാഷ്ട്രീയക്കാരാണെങ്കിൽ തന്നെയും അവരുടെ ഏത് രാഷ്ട്രീയമാണോ ആ രാഷ്ട്രീയം ത്തിലുള്ളവർ ആ രാഷ്ട്രീയത്തെ അവരുടെ ആ പാർട്ടീടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശരിയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ അവതാരകർ പരിശ്രമിക്കുമ്പോൾ അതിനെ നഖശികാന്തം എതിർക്കുന്ന പാർട്ടികളാണ് ഇവിടുള്ളത് ചർച്ചകൾ ചെയ്യുന്നത് വ്യക്തമായി വ്യക്തത ഇല്ലാത്ത രീതിയിലും എന്നാൽ നല്ല കാര്യങ്ങൾ ആണെങ്കിൽ അതിനെ ഉൾകൊള്ളാനുള്ള മനസ്സ് മറ്റ് എതിർ കക്ഷികൾക്ക് ഉണ്ടാകാറില്ല രാഷ്ട്രീയക്കാരുടെ ചർച്ചകൾ മതത്തെ ശരിക്കും അവഹേളിക്കുന്ന രീതിയിലുള്ള അതായത് മതത്തിന് ദോഷകരമായിട്ടുള്ള ഒരു സമുദായത്തെ അല്ലെ ഒരു വ്യക്തിയെ അല്ലെ ആ വ്യക്തിയുടെ സമുദായത്തെ അധിക്ഷേപിക്കത്തക്ക രീതിയിലുള്ള രീതിയിൽ വരുന്നത് വളരെ അപലപനീയമായിട്ടാണ് കാണാറുള്ളത് ചർച്ചകൾ ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ വരുന്നത് ഒരു പരിധി വരെ നല്ലതുമാണ് അതുപോലെ തന്നെ ദോഷകരവുമാണ് വാർത്താ ചർച്ചകൾ ടീ വീൽ വരുന്നത് വളരെ മോശകരമായ രീതിയിലും വളരെ നല്ല രീതിയിലും വരുന്ന ചർച്ചകൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലും എന്നാൽ രസകരവുമായ ചർച്ചകളും വരുന്നുണ്ട് ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിലൊരു വ്യക്തിയെ പുകഴ്ത്തി പറയുകേം അതുപോലെ തന്നെ അതിനെ താഴ്ത്തി പറയേം അതിൻ്റെ ശരിയായ വശം ഏതാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി തരുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ചർച്ചകളിലൂടെ ചെയ്യേണ്ടത് എന്നാൽ ആ ചർച്ചകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരെ ദോഷകരമായി ഭവിക്കത്തക്ക രീതീലാണ് നടക്കാറുള്ളത്

ഈ ഈ ചർച്ചകളൊക്കെ ജനദ്രോഹപരവും എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദവും ഉപകാരപ്രദവുമാകത്തക്ക രീതിയിൽ ഉള്ളതാണ് അതായത് ഓരോ വിഷയത്തിലും വിദ്യാഭ്യാസ മേഖലകളിലേക്കുള്ള ചർച്ചകൾ എടുക്കാണെങ്കിൽ അത് വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കത്തക്ക രീതിയിൽ കൊണ്ട് വരുന്ന ആൾക്കാരും അതിനെ നഖശികാന്തം എതിർക്കയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവതാരകരെ ഏത് വിധത്തിലും അതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചാൽ അതിനെ അടിച്ചമർത്തക്ക എന്നുള്ളതാണ് മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പല ആൾക്കാരും ഷാനി എന്ന അവതാരിക

കഴിവുറ്റ അവതാരികയാണ് അവർ പറയുന്ന കാര്യങ്ങൾ അവരെ അവരെ പോലും എതിർത്ത് കൊണ്ട് അത് ശരിയല്ലാന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ അല്ലെ ആണ് അവയെ വരുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും സാമുദായത്തിൻ്റെയും ഉൾ മേഖലകൾ അവർ ഓരോ വർഷങ്ങളും ചർച്ച ചെയ്യാറുണ്ട് ചർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏത് വിഷയം കിട്ടിയാലും അതിനെ എക്തിസ് എക്തിത്വമായി അക്ത്യുത്വമായിട്ട് തന്നെ ചർച്ചയിലേക്ക് വരുകയും അത് നടത്തയും ചെയ്യുന്നതാണ് ഓരോ വ്യക്തികൾടേം രീതികൾ ഓരോ ചർച്ചകളും പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് കടക്കയും അതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കേം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കളുടെയും ഹിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കേം ചെയ്യുന്നത് വളരെ ദയനീയമായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ചർച്ചകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതും ആധുനിക രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് കടന്ന് വരുന്നതും ആണ് ഈ രീതിയിലുള്ള ചർച്ചകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരപ്രദങ്ങൾ ആകാറുണ്ട്